ഞാൻ എനിക്ക് കുട്ടിക്കാലം മുതൽ ഈ ഗാനം മനസ്സിൽ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് കാരണം ഒരു ഗാനം പാടി ആസ്വദിക്കുമ്പോഴാണ് അതിൻ്റെയൊരു സന്തോഷം നമ്മടെ ഗായകന്മാർ യേശുദാസിൻ്റെയും ജാനകിയുടെയും മറ്റും പഴയകാല പാട്ടെല്ലാം ധാരാളം കേൾക്കാറും ഒക്കെയുണ്ട് ഹിന്ദി പാട്ടുകളും ധാരാളം എല്ലാം കേൾക്കുന്ന ഒരു അനുഭവം ഉണ്ട് എനിക്ക് കുട്ടിക്കാലത്തുള്ള ഒരു അനുഭവം പങ്കുവയ് പങ്കുവയ്ക്കാനുള്ളത് ഞാനൊരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ നല്ലത് പോലെ മനോഹരമായിട്ട് പാടുന്ന പലരും ഉണ്ട് പക്ഷേ ഞാനും പാട്ട് പാടുമെങ്കിലും എനിക്ക് പലപ്പോഴും എനിക്ക് അവഗണന കിട്ടി ഞാൻ എന്നെ ഇങ്ങനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആറാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ഒരു സമയത്താണ് ഒരു പാട്ട് മത്സരം നടത്തിയപ്പം ഈ പാട്ടുകാർക്കെല്ലാം സമ്മാനം കിട്ടിയില്ല അതേസമയം എനിക്ക് അത് ഒന്നാം സ്ഥാനം കിട്ടിയത് വളരെ സന്തോഷം നൽകിയൊരു ദിനമായിരുന്നു അതിന് ശേഷം അവിടെ കുറച്ച് പാട്ട് പാടാനുള്ള സ്വരങ്ങളും സ്വരങ്ങളെക്കുറിച്ചും മറ്റുമെല്ലാം ഒരു അധ്യാപകൻ പഠിപ്പിക്കുവേം കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഗാനം ആലപിക്കുന്ന പല വേദികളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പക്ഷേ പിൽക്കാലത്ത് എനിക്കതിൽ തുടർന്ന് പോവാനായിട്ട് സാധിച്ചില്ലെങ്കിലും കുറച്ച് മുതിർന്ന് കഴിഞ്ഞപ്പോൾ ഞാനിപ്പം ആയിരിക്കുന്ന ദേവാലയത്തിൽ അവിടെ പാട്ട് പാടാനുള്ള അവസരം ദിവ്യവിളിക്ക് ലഭിച്ചത് ഒരു വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് പക്ഷേ പലപ്പോഴും മൈക്കിൽ പാടുമ്പം എനിക്ക് സാധിക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്കത് സാധിക്കുമെന്നുള്ളത് ഒന്ന് രണ്ട് തവണ പാടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല കൃത്യമായിട്ടുള്ള പിച്ചിൽ തുടങ്ങുന്നതിനും ഉയരങ്ങളിലേക്ക് പോവുമ്പം അതിൽ ഒരു കുറവും വരുത്താതെ പാടാൻ സാധിക്കുന്നത് അന്ന് ഈ ആറാം ക്ലാസ്സിൽ വെച്ച് ആ ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു അതിൻ്റെ ഒരു വലുപ്പമായിട്ടാണ് ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പൂർത്തീകരണമായിട്ടാണ് എനിക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ഗാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു അനുഭവം ധാരാളം ഗാനം ഞാൻ കേൾക്കാറുമുണ്ട്